ഇപ്പം മൃഗങ്ങളെ ബാധിക്കുന്ന ചില രോഗങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അകിട് വീക്കം കുളമ്പ് രോഗം അങ്ങനെത്തെ പല രോഗങ്ങളാണ് പശുക്കളെ അല്ലെങ്കിൽ പല പല മൃഗങ്ങളെ ബാധിക്കുന്നത് ഇപ്പം അതിലൊക്കെ നമുക്ക് എങ്ങനെ തടയാമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിരവധി ആയിട്ടുള്ള ഫാക്ടെർസ് ഉണ്ട് ഈ ഒരു രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഇപ്പം എന്നും ഇപ്പം പശു പശുവിനെ എടുക്കുകയാണെങ്കിൽ പശുവിൻ്റെ തൊഴുത്ത് എന്നും വൃത്തിയാക്കി ഇടുക അതുപോലെത്തന്നെ എന്നും വൈകുന്നേരമാകുമ്പോൾ കുന്തിരിക്കം പുകയ്ക്കുക കാരണം അതൊക്കെ ഒരു പക്ഷെ മറ്റ് പ്രാണികളിൽ നിന്നുമൊക്കെ സഹായിക്കാൻ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാവാം അതുപോലെ ഏത് പ്രദേശമാണെങ്കിലും ആ ഒരു മൃഗം കിടക്കുന്ന ആ പ്രദേശം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ടുള്ള ഇത് ചെയ്യണം അതുപോലെ തന്നെ ഇപ്പം കൃത്യമായ സമയത്ത് ഡോക്ടറിൽ നിന്ന് മരുന്ന് അതിന് മേടിച്ചു കൊടുക്കണം എപ്പോളൊക്കെയാണോ മരുന്ന് വേണ്ടത് അപ്പോഴൊക്കെ കൃത്യമായ മരുന്ന് കൃത്യമായ ഇടവേളകളിൽ മരുന്ന് കൊടുക്കാനായിട്ടുള്ള ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കണം കൃത്യമായ ഇൻജെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുപ്പിക്കണം പിന്നെ മറ്റ് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളൊന്നും ഇത് ഈ ഒരു മൃഗങ്ങളുടെ അടുത്തൊന്നുമില്ലാതെ കാരണം അതിൽ നിന്നും പല രോഗങ്ങളോ പ്രാണികളോ ഒക്കെ വന്ന് അവർ ച്ച് ഒരു പക്ഷെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളം അവർ ഇൻഫെക്ഷസ് ആയാൽ അവർക്ക് ആ രോഗങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം ഏതൊരു മൃഗത്തെയാണെങ്കിലും നമ്മളാ ആ ഒരു രീതിയിൽ സംരക്ഷിക്കണം എന്നും കുളിപ്പിക്കുക എന്നും അവരെ ശുചിയായിട്ട് വെക്കാനായിട്ടുള്ള ഇത് നമ്മൾ എടുക്കണം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുന്തിരിക്കം ഇട്ട് പുകച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രാണികളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമുണ്ടാകും പിന്നെ അവരിരിക്കുന്ന കൂടിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ പള്ളയും അതൊന്നുമില്ലാതെ തന്നെ ക്ലീൻ ചെയ്തു കൊടുക പിന്നെ അവർക്ക് കൊടുക്കുന്ന ഫുഡിൽ എപ്പഴും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നല്ല ഫുഡ് മാത്രം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു ഒരു ഭാഗം വരെ നമുക്ക് ഇതൊക്കെ തടയാൻ പറ്റും